നമ്മുടെ മുത്തശ്ശിയുടെ ഒക്കെ കാലത്താണ് പൂർവ്വികരുടെ കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതലും പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുള്ളത് നമ്മുടെയൊക്കെ മുത്തശ്ശികളും ചാച്ചമ്മാരുമൊക്കെ പറഞ്ഞ് തന്ന പഴഞ്ചൊല്ലുകളാണ് നമ്മൾ ഇപ്പോഴും എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ആദ്യം പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ് അതിനെ നല്ല രസമാക്കും ആ നല്ല രസത്തിലാണവർ ഈ പഴഞ്ചൊല്ലുകളൊക്കെ പറയുന്നത് എന്തെങ്കിലും കാണിച്ച് കഴിഞ്ഞാൽ അപ്പം പഴയ ആൾക്കാരൊക്കെ പഴഞ്ചൊല്ല് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് കുറേ പഴം ചൊല്ലുകളുണ്ട് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എല്ലുമുറിയെ പണിതാൽ പല്ലു മുറിയെ തിന്നാം ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് പുരയ്ക്കുമീതെ വെള്ളം വന്നാൽ അതിനുമേലെ തോണി എന്ന പഴഞ്ചൊല്ലാണ് ഇതിനർത്ഥം എന്തെന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തെ നേരിടാൻ മനസുകൊണ്ട് തയ്യാറാകുക എന്നതാണ് ഇതുപോലുള്ള കുറേ പഴഞ്ചൊല്ലുകളുണ്ട് പക്ഷെ ഏറ്റോവധികം കേട്ടിട്ടുള്ളതും ഇതുപോലത്തെ പഴഞ്ചൊല്ലുകളാണ് ആർക്കാനും വേണ്ടി ഓക്കാനിയ്ക്കുക എല്ലു മുറിയെ പണിതാൽ പല്ലു മുറിയെ തിന്നാം എന്നൊക്കെയുള്ള പഴഞ്ചൊല്ലുകളാണ് നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നത് പഴഞ്ചൊല്ലുകളൊക്കെ പണ്ടത്തെ കാലത്തെ ആൾക്കാരാണ് എപ്പഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇപ്പഴത്തെക്കാലത്തെ പഴഞ്ചൊല്ലുകളൊക്കെ കേൾക്കണമെങ്കിൽ നമ്മൾ പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ച് അങ്ങനെവേണം മനസിലാക്കാൻ